ആദ്യമായിട്ട് ഞാൻ തയ്ക്കുന്നത് സ്കൂളിൽ പഠിപ്പിച്ച സ്കൂളിൽ തയ്യൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം അപ്പം ഞാൻ സ്കൂളിൽ ത് ഇങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുവായിരുന്നു ടൗവൽ ഒക്കെ തയ് കൈതയ്യലൽ തയ്പ്പിച്ച് അങ്ങനെ എനിക്കു തയ്യൽ തയ്യലിനോടൊരു ഇഷ്ടം തോന്നി അങ്ങനെ പിന്നെ കുറച്ച് അന്ന് സ്കൂളൊക്കെ കഴിഞ്ഞു പ്രീഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അല്ല മഷീൻ വാങ്ങിച്ചു തയ്ക്കണമെന്നു തോന്നി അപ്പം പിന്നെ എനിക്ക് മഷീൻ മേടിച്ചു തന്ന് അങ്ങനെ തന്നെ ഞാൻ തയ്യൽ കുറച്ച് പോയി പഠിച്ച് അങ്ങനെ എന്താ ത കുറേ പിള്ളേരുടെ ഉടുപ്പുകളും മറ്റ് എന്താ അണ്ടർ സ്കെർട്ട് ബ്ലൗസ് ടോപ് ടോപ്പൊക്കെ തയ്ക്കുവായിരുന്നു പിന്നെ നൈറ്റിയൊക്കെ തയ്ക്കാൻ തുടങ്ങി പിന്നെ കല്ല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം കൊ കുറച്ചു നാളത്തേന് തയ്യൽ അധികമൊന്നും നടന്നില്ല കാരണം എനിക്കു നാല് കുട്ടികളാണെന്ന് നാല് പെൺകുട്ടികളാണ് അപ്പം തയ്യലിൻ്റെ ഒത്തിരി ആവശ്യകതയുണ്ടല്ലോ അല്ലേ എപ്പോഴും തയ്ക്കാനും അടിക്കാനും എല്ലാം ഉണ്ട് പിന്നെ ഈ എപ്പോഴും കടയിൽ പോയി കൊടുത്ത് തയ്ക്കാനൊക്കെ ഉള്ള സാഹചര്യം ഇല്ലായിരുന്നതു കൊണ്ട് പിന്നെ മാ തയ്ക്കാമെന്ന് തീരുമാനിച്ച് അതാണെനിക്ക് പ്രചോദനമായതു പിള്ളേരുടെയൊക്കെ തയ്ക്കണമല്ലോ ആ അപ്പം പിന്നെ ഓ വീണ്ടും ഒരു മഷീൻ വാങ്ങിച്ച് വ് വീണ്ടും തയ്യൽ തുടർന്നു അങ്ങനെയാണ് ഇപ്പം ഒരുവിധം പെട്ട സാധനങ്ങൾ ചുരിദാറിൻ്റെ ടോപ്പ് പിള്ളേരുടെ ഉടുപ്പുകൾ പെറ്റിക്കോട്ട് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ബ്ലൗസ് എല്ലാം തയ്ച്ചു പുറത്തോട്ടൊന്നും ത അങ്ങനെ തയ്ച്ചു കൊടുക്കുന്നില്ലെങ്കിലും ആവശ്യത്തിനുള്ളതെല്ലാം ഒരുമാതിരി സാധനങ്ങളെല്ലാം ഞാൻ തയ്ക്കുമായിരുന്നു അത്കൊണ്ട് ഒത്തിരി നമുക്ക് മെച്ചം കിട്ടി കാരണം തയ്യൽകൂലിയൊക്കെ ഒത്തിരി ലാഭിച്ച് പിന്നെ കീറിയതെല്ലാം അടിക്കാനും ഓരോന്നൊക്കെ ചെറിയ ഇതായിട്ടുള്ളതു തന്നെ തയ്ക്കാനും തുടങ്ങിയപ്പം ഒത്തിരി നമുക്ക് ലാഭമുണ്ടായിരുന്നു പുറത്തൊക്കെ കൊടുക്കണമെങ്കിൽ ഭയങ്കര സ്റ്റിറ്റിച്ചിങ് ചാർജ്ജല്ലേ അങ്ങനെയാണ് ഞാൻ തയ്യൽ പിന്നെയും തുടരാനുള്ള കാരണം